ഉണ്ട് എന്താ ആളുകള് കാണാനായിട്ട് ഞാനെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒന്നെങ്കില് ആരേലും ഒക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആരേലും ഒക്കെ ചുമ്മ ഫോണെടുക്കുമ്പോൾ അവര് നോക്കാറുണ്ട് അല്ലെങ്കില് നമ്മളെടുത്തിട്ട് നമുക്ക് കൂടുതല് ഭംഗിയായി എന്ന് തോന്നിയ ഫോട്ടോസ് നമ്മള് ചിലപ്പോൾ സ്റ്റോറി ഇടുമ്പഴോ അല്ലേൽ സ്റ്റാറ്റസ് ഇടുമ്പഴോ ഇതും അല്ലെങ്കിൽ ഫ്രണ്ട്സിനു ആയിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ചുരുക്കം ചെലർക്ക് എന്താക്കും ചെലർക്ക് ഇഷ്ടപ്പെടും ചെലർക്ക് ഇഷ്ടപ്പെടില്ല

ഇപ്പം നിലവില് നമ്മൾ ഇപ്പം ഒരു ഫോട്ടോ എടുത്തു ഒരാളെ കാണിച്ചു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയുക അത് ശെരിയില്ല നിനക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ള രീതിയിലാണ് ചിലർ പറയും അത് കൊള്ളാം കുഴപ്പമില്ല എന്നുള്ള രീതിയില് ഞാൻ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാർക്കാണെങ്കില് അവർക്ക് ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള അനുഭവം വളരെ മോശമൊക്കെ തന്നെ പിന്നെ എന്നാലും ഒന്നും അത്ര വലിയ കാര്യമായിട്ടെടുക്കണ്ട കാര്യങ്ങളല്ലല്ലോ